ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങളും വേണ്ടാത്ത പല ചെയ്തികളും വേണ്ടാത്ത പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ രാജ്യത്ത് നല്ലവണ്ണം അധികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളില് തൊട്ടടുത്ത സംസ്ഥാനങ്ങളില് തൊട്ടടുത്ത ജില്ലകളില് അങ്ങനെ തൊട്ടടത്ത ഏതൊരു മുക്കിലും മൂലകളിലുമൊക്കെ ഇന്ന് ധാരാളം പ്രശ്നങ്ങളും വലിയ വലിയ കാര്യങ്ങളുമൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അച്ഛനെ കൊല്ലുക മകൻ ഒരു കാര്യവുമില്ലാതെ അച്ഛനെ കൊല്ലില്ല ചിലപ്പോള് ഈ എം ഡി എം എയ്ക്കൊക്കെ അടിമയായ മകന് അല്ലെങ്കില് വല്ല കള്ളിനും അടിമയായ ഡ്രഗ്സിനടിമയായ മകന് അച്ഛനെ കൊല്ലുക അല്ലെങ്കില് മകള് അമ്മയെ കൊല്ലുക അല്ലെങ്കില് അമ്മ എന്താണ് മറ്റുള്ളവരുടെ കൂടെ എന്തുചെയ്യും സ്വന്തം ഭർത്താവിനെ കൊന്നിട്ട് ഇതാക്കുക അങ്ങനെ പല രൂപത്തില് കൊലകൾക്കും പിന്നെ ഫുള് കൊല്ലവിളികളാണ് ഇപ്പോള് നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്തുവരെ ഷഹബാസെന്ന ഒരു വിദ്യാർത്ഥിയെ എന്താണ് കൊന്നത് നമ്മളൊക്കെ കണ്ടതാണ് ഹബാസെന്ന് പറയുന്ന വിദ്യാർത്ഥിയെ എന്താണ് എല്ലാവരും കൂടി കൊന്നുവെന്നുള്ളതൊക്കെ നമ്മളീ അടുത്തറിഞ്ഞതാണ് അതൊക്കെ വിദ്യാര്ത്ഥികള് റാഗിങ് നടത്തിയിട്ട് ആ വിദ്യാർത്ഥിയെ എന്താണ് നല്ല നിഷ്ഠൂരമായിട്ട് എന്താണാക്കിയത് ആ വിദ്യാർത്ഥിയെ കൊന്നു അതൊന്നും എന്താണ് നമ്മള് കാണാതെ പോകരുത് അങ്ങനെ ഈ ഇന്നത്തെക്കാലത്തെ എന്താണ് വളരെയധികം അതായത് ഈ ആ വിദ്യാർഥികളൊക്കെ കൊന്നപ്പോള് ആ വിദ്യാർത്ഥികളുടെ വോയിസൊക്കെ ലീക്കായിരുന്നു ആ വിദ്യാർത്ഥികള് പറഞ്ഞത് നമുക്കൊരു പ്രശ്നവുമില്ല കാരണം നമ്മളെന്തല്ലല്ലോ ഒരിക്കലും നമ്മളെന്തായിട്ടില്ല മേജറായിട്ടില്ല നമ്മള് ഇപ്പോഴും മൈനേഴ്സ് ആയതുകൊണ്ട് നമുക്കെന്താണ് യാതൊരു പ്രശ്നവുമില്ല അതുകൊണ്ട് എന്താണ് നമുക്കെന്ത് ചെയ്താലും കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ആ സമൂഹമെന്ത്